ആ ഊബർ ഡ്രൈവറല്ലേ ആ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു ചേട്ടാ ഞാൻ കുറേ സമയമായി ഇവിടെ നിൽക്കുകയാണ് ചേട്ടനെ കാണുന്നില്ല എവിടെയാണ് ഉള്ളത് ബസ്സ് സ്റ്റാൻ്റിൻ്റെ അടുത്തണോ ചേട്ടാ ഞാൻ ആ ബസ്സ് സ്റ്റാൻ്റിൻ്റെ അടുത്തുതന്നെ ഞാൻ പാനൂർ ബസ്സ് നിർത്തിയിരിക്കുന്ന സ്ഥലത്താണ് ഉള്ളത് പാനൂർ ബസ്സ് ചേട്ടനിപ്പോൾ ഏത് ഭാഗത്താണ് ഉള്ളത് അയ്യോ അവിടെയല്ല അത് ഇരിട്ടി ബസ്സ് നിർത്തിയിരിക്കുന്ന സ്ഥലമാണ് ചേട്ടൻ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നാലുണ്ടല്ലോ കുറച്ചുംകൂടി മുന്നേട്ടേക്ക് വന്നാൽമതി കുറച്ചുംകൂടി മുന്നേട്ടേക്ക് വന്നാൽ ഞാൻ അവിടെ പാനൂർ ബസ്സ് നിർത്തുന്ന സ്ഥലം ഉണ്ടാവും അതിൻ്റെ ഓപ്പോസിറ്റ് ആയി നിൽക്കുന്നൊരു സുറുമയെന്നു പറയുന്നൊരു കടയുണ്ട് പീടികയുണ്ട് ആ പീടികേൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽമതി അത് ഇരിട്ടി ബസ്സ് ഇപ്പുറത്തെ ഭാഗത്താണ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാലാണ് പാനൂർ ബസ്സ് നിർത്തുന്ന സ്ഥലമുണ്ടാവുക ആ അതിൻ്റെ പാനൂർ ബസ്സ് നിർത്തുന്ന അവിടെത്തന്നെ ബസ്സിൽ കീയാനുള്ളൊരു ഇതുണ്ട് റോടുണ്ട് ആ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഷോപ്പാണ് അതിൻ്റെ കറക്ട് നേരെ ഓപ്പോസിറ്റ് ആ സുറുമയെന്നു പറഞ്ഞിട്ടൊരു പീടികയാണ് അതിനു മുന്നിൽത്തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ ആ ആ എന്നാൽ വേഗം വാ കേട്ടോ ഞാനവിടെ നിൽക്കുന്നുണ്ട്